എൻ്റെ ഏറ്റവും വലിയ നേട്ടം എന്നത് അത് എൻ്റെ മക്കള് തന്നെയാണ് എനിക്ക് രണ്ട് മക്കളാണുള്ളത് ഒന്ന് രണ്ടാം ക്ലാസ്സിലും ഒന്ന് ഇതുപോലെ പത്താം ക്ലാസ് കഴിഞ്ഞു ഇപ്പോൾ പത്ത് കഴിഞ്ഞ് പ്ലസ് വണ്ണിലേക്ക് കയറി അപ്പം എൻ്റെ ഏറ്റവും വലിയ നേട്ടം എന്നത് എൻ്റെ മോള് പത്താം ക്ലാസ്സിൽ ഫുൾ എ പ്ലസ് ആയിരുന്നു അപ്പോൾ അത് എൻ്റെ എൻ്റെ മക്കളാണ് എൻ്റെ നേട്ടം അപ്പം മക്കൾ നേടുന്നത് എന്തും എൻ്റെ നേട്ടം കൂടിയാണ് അപ്പം എനിക്കേറ്റവും കൂത് കൂടുതൽ അഭിമാനം തോന്നിയത് അവളിൽ എനിക്ക് അഭിമാനം തോന്നിയ നിമിഷം തന്നെയാണ് ആ പത്താം ക്ലാസ്സ് മാർക്ക് കിട്ടിയ ആ സമയം എനിക്ക് എനിക്കും അഭിമാനമാണ് അതുപോലെ തന്നെ അവൾക്ക് ഞങ്ങൾക്ക് തരാൻ പറ്റിയ ഒരു അഭിമാന നിമിഷങ്ങളിലൊന്നാണത് അപ്പോൾ എൻ്റെ മക്കള് തന്നെയാണ് എൻ്റെ നേട്ടം അതുപോലെ എൻ്റെ രണ്ടാം ക്ലാസ്സിലുള്ള പഠിക്കുന്ന മകളാണെങ്കിൽ തന്നെ നല്ല രീതിയിൽ പഠിച്ചിട്ട് ഇപ്പോൾ അത്യാവശ്യം സംസാരിക്കും പിന്നെ ക്ലാസ്സിലാണെങ്കിലും നല്ല രീതിയിൽ പഠിക്കുകയും എല്ലാം തന്നെ ചെയ്യുന്നുണ്ട് ടീച്ചേഴ്സിൻ്റെ അടുത്താണെൽ നല്ല അഭിപ്രായങ്ങളാണ് ഞാൻ കേൾക്കുന്നത് അതും എനിക്ക് നല്ല അഭിമാനം തോന്നിയൊരു നേട്ടം തന്നെയാണ് ഈ രണ്ട് മക്കളെയും എനിക്ക് അഭിമാനം തന്നെയാണ്